മറ്റുള്ളവരെ നൃത്തം പഠിപ്പിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട് അതു നല്ല ഒരു കാര്യമാണ് പിന്നെ അതു ഞങ്ങൾ എന്ന സ്കൂളിൽ പഠിച്ചു കൊണ്ടിരിക്കുമ്പോൾ തൊട്ട് ഞങ്ങൾ എല്ലാ തിരുവാതിര കളിക്കും പിന്നെ മറ്റുള്ളവരെ അതു നമ്മൾ പഠിപ്പിക്കും അതുപോലെതന്നെ പിന്നെ നമ്മൾ കുറച്ചും കൂടി പ്രായമായിക്കഴിഞ്ഞാണെങ്കിലും നമുക്കോരൊ പരിപാടി പള്ളിയിലൊക്കെ ഓരോ പരിപാടി വെച്ചാൽ നമ്മൾ മറ്റുള്ളവരെക്കൂടി ആ നൃത്തം പഠിപ്പിച്ചു പഠിപ്പിക്കും പിന്നേ എന്നെ ഒപ്പന ഒപ്പന പിന്നെ എന്തുവാ തിരുവാതിര ഇങ്ങനെ ഒത്തിരിയൊത്തിരി ഐറ്റങ്ങൾ ഞങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് കളിച്ചിട്ടുണ്ട്